കുഴൽ കുഴല്ക്കിണര് പ്രവര്ത്തിക്കുന്നത് ആദ്യം കുഴല്ക്കിണറിനെക്കുറിച്ച് പറയാം കുഴല്ക്കിണര് എന്താണെന്നു പറഞ്ഞാൽ സാധാരണ നമ്മൾ കിണർ കിണർ ജലം ലഭ്യമാവാത്ത സ്ഥലവും പിന്നെ മറ്റു വരണ്ട പ്രദേശങ്ങളൊക്കെ ഉണ്ടാവില്ലേ അവിടെ നിന്ന് വെള്ളം കിട്ടാത്ത അവസ്ഥ വരുമ്പം ഭൂമീന്റെ ഉള്ളില് നിന്ന് ലഭ്യമായ ഭൂഗര്ഭജലം ശേഖരിക്കാനായിട്ട് പിന്നെ നിര്മ്മിക്കുന്നൊരു

സാധാരണ നമ്മൾ കിണറുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക വായ്വട്ടം കുറവായിരിക്കും പക്ഷേ എന്നാൽ നല്ല ആഴക്കൂടുതലും ഉണ്ടാവും പണ്ടൊക്കെ കുഴല്ക്കിണർ പ്രവര്ത്തിക്കുന്നത് നമ്മൾ മോട്ടർ മോട്ടർ വച്ചിട്ട് അടിച്ചു എടുക്കുന്ന പരിപാടിയല്ല

ശേഖരിക്കാന് പറ്റും പിന്നെ വേറൊന്നു വച്ചാൽ നമ്മളെ ഈ ഗ്രാമത്തിൽ എന്റെ ഗ്രാമത്തിലെ കോമണായിട്ട് എല്ലാവരും വെള്ളത്തിനായി ഉപയോഗിക്കുന്നൊരു വലിയ കിണർ അങ്ങനെയില്ല എല്ലാവര്ക്കും പൊതു കിണർ തന്നെയാണ് ഉപയോഗിക്കുന്നത് കുഴല്ക്കിണറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴല്ക്കിണർ ഇപ്പം ഒട്ടുമിക്ക വീടുകളിലും കുഴല്ക്കിണറാണ് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ കുഴല്ക്കിണർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതാവുമ്പോൾ പിന്നെ ബാക്കിയൊന്നും പേടിക്കാനില്ല സേയ്ഫാണ് പണ്ടെത്തെപ്പോലെയല്ല പണ്ട് ഭയങ്കര സേഫ്റ്റി കുറവുള്ള ഒന്നായിരുന്നു കുഴല്ക്കിണർ